എല്ലാ ആളുകളും ഒത്തുചേരുന്ന സ്ഥലമാണ് മതപരമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മുസ്ലിംസിന്റെ ആണെങ്കിലും നോമ്പ് തുറക്കുകയും ഇപ്പോൾ എല്ലാവരും എല്ലായിടത്തും നോമ്പ് തുറന്നയിടത്ത് നിന്നിട്ട് അതിന്റെ എല്ലാ മതക്കാരും എത്തിച്ചേരുന്നുണ്ട് പിന്നേ ഉത്സവങ്ങളില് ആണേലും അപ്പോൾ വള്ളിയൂർക്കാവ് ഉത്സവം പോലെയുള്ള നമ്മുടെ വയനാടിന്റെ ദേശിയ ഉത്സവമായ ആയ വള്ളിയൂർക്കാവ് ഉത്സവം അതിലിപ്പോൾ നാനാ ജാതി മതസ്ഥരും ഇവിടെ വരുന്നുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നെല്ലാം ജില്ലയ്ക്ക് കേരളത്തിന് പുറത്തുനിന്ന് പോലും ആൾക്കാർ ഇഷ്ടം പോലെ അതിന് വരുന്നുണ്ട് പിന്നേ ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകളില് അതില് എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ അത് നമ്മള് മാസത്തില് ഒരു മീറ്റിങ്ങുപോലെ കൂടുകയും നല്ല രസമാണത് എല്ലാവരും ഒരേ പോലെ പങ്കെടുക്കുന്ന ഒരു സംഭവമാണ്

അവളും അതിനായിട്ടിപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങൾ തന്നെയാണ് ഒരു പത്തമ്പത് വീട്ടുകാര് കൂടുമ്പോൾ ആ പ്രദേശത്തുള്ള വീട്ടുകാര് കൂടിയിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് മീറ്റിങ്ങ് കൂടുകയും വാർഷികം നടത്തുകയും ഓണപ്പരിപാടികൾ ആയാലും നടത്തുകയും നോമ്പു തുറയ്ക്ക് നോമ്പ് തുറന്നും അതുപോലെ ക്രിസ്മസ് പരിപാടികൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ എല്ലാ പ്രദേശത്തും അസോസിയേഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും അതിൽ തന്നെയാണ് ആരും വിട്ട് നിൽക്കുന്നൊന്നും ഇല്ല ജാതീന്റെ മേലെ ആരും വിട്ടു നിൽക്കുന്നില്ല എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടെ അതിൽ പങ്കെടുക്കുന്നുണ്ട്